ഈ അടുത്തിടയ്ക്ക് ഒരു കല്യാണ ബ്ലൗസിൻ്റെ ഒരു ഓഡർ കിട്ടിയിരുന്നു അപ്പോൾ പെട്ടന്നാണ് അവർ കൊണ്ടുതന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തു അളവ് ആദ്യം അളവ് ബ്ലൗസ് തന്നിട്ടുണ്ടായിരുന്നു അത് തന്നിട്ട് ആണ് അവർ പറഞ്ഞത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്ന് പക്ഷേ ആ അളവ് ബ്ലൗസ് ആ കുട്ടിയുടെ ഫസ്റ്റ് ടൈം എന്തോ തയ്ച്ച ഒരു എന്താ ബ്ലൗസായിരുന്നു എന്നിട്ട് അവർ വേറൊന്നും പറഞ്ഞില്ല കൊണ്ടുവന്നിട്ട് അതുപോലെത്തന്നെ തയ്ക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അതുപോലെ തയ്ച്ച് പിറ്റേ ദിവസം ആ കുട്ടി ഇട്ടുനോക്കാൻ വന്നപ്പോൾ അത് നല്ല ടൈറ്റായിരുന്നു അത് അന്ന് അതിൻ്റെ തലേ പിറ്റേന്നായിരുന്നു കല്യാണം അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഓട്ട് ഭയങ്കര ടെൻഷനായി ജീവിതത്തിലാദ്യമായിട്ടാണ് അങ്ങനെ പറ്റിപ്പോയത് നല്ല ടൈറ്റായിരുന്നു പിന്നെ അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇതായിട്ട് പിന്നെ അതിനെ ഒന്നേന്ന് പൊളിച്ച് കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെ ഒന്നേന്ന് ചെയ്യേണ്ടി വന്നു അങ്ങനെ ജീവിതത്തിൽ അതൊരു വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയായിരുന്നു അതിനെ മറി കടന്നതെന്ന് പറഞ്ഞാൽ അതൊന്നേന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നു പിന്നെ അതിൻ്റെ കുറച്ച് ബാലൻസ് തുണി ഉണ്ടായിരുന്നതുകൊണ്ട് പീസൊക്കെ വെച്ച് അടിച്ച് ഹാൻഡ് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഒരൂപാട് അങ്ങനെയൊക്കെ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ കടന്നു പോയന്ന് കാരണം വിശ്വസിച്ച് എന്നെ ഏല്പിച്ചിട്ട് അത് അങ്ങനെ ആയിപ്പോയല്ലോയെന്നുള്ള ഒരു സങ്കടവും അതിൻ്റെ പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് എന്ത് ആ കൊച്ചിൻ്റെ ഇത് കല്യാണമായിരുന്നത് കൊണ്ടും അതൊരുപാട് വിഷമമുള്ള ഒരു ഒരു ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിൽ തന്നെ പിന്നെ അത് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എങ്ങനെയെക്കെയോ മറികടന്നു ആ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റി ഒരുപാട് പ്രാർത്ഥിച്ചും അങ്ങനെ ചെയ്തും അത് എൻ്റെ അതെൻ്റെ അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്കല്ല അത് അവർ പറഞ്ഞിട്ട് അങ്ങനെ ആത് പറഞ്ഞ് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു ആ നല്ല ടൈറ്റാണെന്നോ അങ്ങനെ എന്ത് കുറച്ചുകൂടെ ഇത് അഴിച്ച് തയ്ക്കണമെന്നോ അങ്ങനെയൊന്നും പറയാതെ അവർ പോയതാണ് അപ്പോൾ അതവരുടെ ഭാഗത്തുനിന്നുള്ള തെറ്റ് തന്നെ ആയതുകൊണ്ട് അവർ വേറെ ഒന്നും പറഞ്ഞില്ല എങ്ങനെയെങ്കിലുമൊന്ന് നന്നാക്കി തരാം പറ്റുമോ എന്ന് ചോദിച്ച് അതുകൊണ്ട് പിന്നെ എൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത് അങ്ങനെ പോയി പിന്നെ അ പഴയതിൽ നിന്ന് പഴയതിൽ നിന്നും നന്ന് നല്ലതായിട്ട് നല്ല രീതിയിൽ അത് ചെയ്ത് കൊടുക്കാൻ പറ്റി പിന്നീടായപ്പോൾ പിന്നീട് കുറച്ച് പീസ് വെച്ച് അടിച്ച് അവിടെയെല്ലാം ഹാൻഡ് ഇത് കൈകൊണ്ട് തന്നെ ഇത് മുത്തുകളും കഡ് ബീഡ്സും ഒക്കെ വെച്ച് ചെയ്ത് ആ ഭാഗം കവറ് ചെയ്തു അതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസായിരുന്നു അതോടെതന്നെ വലിയ കുഴപ്പം വന്നില്ല അങ്ങനെ ആ പ്രതിസന്ധി അങ്ങനെയൊരു രീതിയിലങ്ങ് മറികടന്നു അതുപോലെത്തന്നെ സ്കൂ വേറൊരു സംഭവമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്കൂൾ യൂണിഫോം തയ്ക്കാൻ കൊണ്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ തികഞ്ഞ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന തുണികളാണ് അവർ കൊണ്ട് വരുന്നത് അത് പകുതിയിലും അത്രയും തുണി കാണില്ല തയ്ക്കാൻ വേണ്ടീട്ട് കോട്ടായാലും പാൻറ്റായാലും കോട്ടിനൊക്കെയാണെങ്കിൽ ഒരു ഒന്നര മീറ്ററെങ്കിലും വേണം ഒരൊന്നര മീറ്ററെങ്കിലും വേണം പക്ഷെ ആ ആ സ്കൂളീന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ഒന്നരയൊന്നും കാണില്ല വലിയ കുട്ടികൾക്കാണെങ്കിൽ നല്ല വണ്ണമൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അതൊന്നും തികയാതെ തന്നെ വരുന്നതുകൊണ്ട് പാൻറ്റിൻ്റെ തുണിയായാലും അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് എൻ്റെ രണ്ട് കുട്ടികൾക്കും തുണി വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അതേപോലെ പറ്റി പിന്നെ എനിക്ക് തയ്യലറിയാവുന്നതുകൊണ്ട് ഞാനതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരു പീസൊക്കെ വെച്ച് ചെയ്ത് അടി ഭാഗമൊക്കെ കവർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ ഓരോ പ്രതിസന്ധിഘട്ടങ്ങളിലും തയ്യലറിയാവുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അത് മറിഞ്ഞ് മാറി കിടക്കുന്നുണ്ട്